ഇന്ത്യയിലെ ഭക്ഷണത്തിനെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല ഭക്ഷണങ്ങളാണ് കിട്ടുന്നത് പ്രത്യേകിച്ചും കണ്ണൂരിൽ കിട്ടുന്നത് വളരെ ജനപ്രീതിയുള്ള ഭക്ഷണം ആണെന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം അത്രയും നല്ല രുചികരമായ ഭക്ഷണമാണ് നമുക്ക് കണ്ണൂരിൽ നിന്ന് കിട്ടുന്നത് അവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ഓണത്തിന് സദ്യ അതിൽ എന്തൊക്കെയാണ് സാമ്പാർ അവിയൽ ഓലൻ കൂട്ടുകറി കാളൻ പുളിശ്ശേരി ഇങ്ങനെയുള്ള വിഭവങ്ങളാണ് ഉണ്ടാവുന്നത് ഇതിന്റെ അകത്തൊക്കെ പ്രത്യേകമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള മസാലകളാണ് മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ മസാലപ്പൊടികൾ അതായത് കൊത്തമ്പാരിപ്പൊടി മല്ലിപ്പൊടി ഇങ്ങനെയുള്ള മസാലകളാണ് കിട്ടുന്നത് അത് കൊത്തമ്പാരിയൊക്കെ കൊത്തമ്പാരി അല്ലെങ്കിൽ മല്ലി വാങ്ങിച്ചിട്ട് കുത്തിയെടുത്ത് പൊടിച്ച് നമ്മളൊരു കറിയിലേക്ക് ചേർക്കുകയാണെങ്കിൽ വളരെ നല്ല രുചിയായിരിക്കും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയെ പറയുകയാണെങ്കിൽ നാടൻ മഞ്ഞൾ നമ്മൾ വിള ചെയ്ത് എന്നിട്ട് പൊടിച്ചെടുക്കുന്ന മഞ്ഞൾ കൊണ്ട് കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ നല്ല രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും പിന്നെ നമുക്ക് ബിരിയാണി കാര്യങ്ങളും ഒക്കെ ജനപ്രീതിയുള്ളത് തന്നെ ആണ് ആൾക്കാരിക്കിഷ്ടം ഉള്ളത് ആണ് അതിൽ യൂസ് ചെയ്യുന്ന മസാലകളും വളരെ നല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന ഒരുപാട് പട്ടയും ഗ്രാമ്പു ഇങ്ങനെ ഉള്ള മല്ലിപ്പൊടി കാര്യങ്ങളൊക്കെ ഗരം മസാല ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വീട്ടിൽ തന്നെ ആക്കിയെടുത്ത് ഭക്ഷണത്തിലേക്ക് ചേരുവയായി ചേർക്കുകയാണെങ്കിൽ വളരെ നല്ല രുചികരമായ മസാലകൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതൊക്കെ ബിരിയാണിലൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിക്കൻ പൊരിക്കുമ്പോഴും പിന്നെ വരട്ടുമ്പോഴൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രുചികരമായ ഭക്ഷണമാണ് നമുക്ക് കിട്ടുന്നത്